മലയാള ഭാഷ എന്ന് പറയുമ്പം തന്നെ നമുക്ക് അറിയാം ഓരോരോ സ്ഥലങ്ങളിലും ഓരോരോ രീതിയിലാണ് ഇപ്പോൾ കണ്ണൂർ കോഴിക്കോട് വയനാട് എല്ലാ ജില്ലകളിലും എല്ലാത്തിനും വേറെ വേറെ ആണ് പറയുന്നത് എല്ലായിടത്തും അച്ചടി ഭാഷയല്ല പറയുന്നത് സംസാരിക്കുന്നു തൃശ്ശൂർ സംസാരിക്കുന്നതും കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് എല്ലായിടത്തും എല്ലായിടത്തും വ്യത്യാസം വ്യത്യാസം പലതും പല രീതിയിലാണ് ഒരെണ്ണത്തിന് ഒരെണ്ണത്തിന് തന്നെ കുറെ അർത്ഥങ്ങൾ ഇതിൽ പറയുന്നു ചില സ്ഥലങ്ങളിൽ പറയുന്നത് ചില വാക്കുകൾ അവിടെ കണ്ണൂർ പറയുന്ന ചിലപ്പോൾ നമുക്ക് തൃശ്ശൂർ ഒക്കെ തെറിയ് തെറിയായിട്ടായിരിക്കും ചീത്തവാക്കുകൾ ആയിട്ടായിരിക്കും കേൾക്കുന്നത് ഇപ്പോൾ നമ്മൾ അവിടെ ചാടുക എന്ന് പറയുമ്പോൾ അവിടെ തുള്ളുക അങ്ങനെ ഒക്കെ പറയുന്നു കുറെ കുറെ അധികം വ്യത്യാസങ്ങളുണ്ട് ആന്ന് പിന്നെ അധികം ആരും ഇപ്പോൾ മലയാള ഭാഷ അങ്ങനങ്ങ് സംസാരിക്കാൻ മാത്രമാണ് ഉപയോഗിക്കുക ഇപ്പം മെസ്സേജയക്കാനും ഒക്കെ എല്ലാവരും ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുക മലയാള ഭാഷ എഴുതാനും ആരും ഇപ്പം ചെയ്യാറില്ല പത്രം വായിക്കുക അതൊക്കെ ജെസ്റ്റ് സംസാരിക്കാൻ മാത്രമാണ് നമ്മൾ ഇപ്പോൾ മാതൃഭാഷ യൂസ് ചെയ്യുന്നത് ബാക്കി എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷാണ്